ഹലോ ഡോക്ടർ അശ്വിൻ അല്ലെ എനിക്കൊരു പൂച്ച ഉണ്ട് പെറ്റ് ദിവാകരനെന്നാണ് പേര് അപ്പോൾ പുള്ളിക്ക് രണ്ട് ദിവസമായിട്ട് ഫുഡ് ഒന്നും വേണ്ട അപ്പോൾ എന്ത് ചെയ്യണം

ഇന്നലെ ഫുഡ് തട്ടിക്കളയാണ് ചെയ്തത് ഇന്നുതൊട്ടു പുള്ളി ഫുഡ് കഴിക്കുന്ന സമയത്തു കാണാൻ ഇല്ല ഇവിടെ പരീക്ഷ ഒന്നും എഴുതിയിരുന്നില്ല നാടുവിട്ടുപോകാൻ നോക്കട്ടെ ഇല്ലില്ല ഇവിടെത്തന്നെ വരും രാത്രി വരാറുണ്ട് ഈ വരുന്ന ചിങ്ങത്തിൽ അറുപത് വയസ്സാവും പുള്ളിക്ക് എൻ്റെ പേര് അശോക് ഓ ഒഹ് ഓ പൂച്ചക്ക് നമ്മൾ കഴിക്കുന്ന ചോറാണ് കൊടുക്കാറ് പൊതുവെ അരി ഇവിടെ അല്ല വെക്കാറ് കടയിൽ നിന്ന് ആണ് വാങ്ങാറ് ബാക്കി ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ

ഓക്കേ ഓക്കേ

ഇല്ല ഇപ്പോൾ കുറച്ചു രണ്ടു ദിവസമായിട്ട് ചെറുതായിട്ട് പാസ് ചെയ്യുവാണ് ബാക്കി അല്ലാത്ത സമയത്തു ആക്റ്റീവ് ആയിട്ട് ഇരുന്നു ഓ ഓ ഓ ഓ അതെ അതെ ഓ പൂച്ചക്ക് പാരസെറ്റമോൾ ചെറുതായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പനി വന്നപ്പോൾ കൊടുത്തിരുന്നു അപ്പോൾ പുള്ളിക്ക് ചുമ വന്നു പനി വന്നതിൽ ഇപ്പോൾ മാറി കാണുവോന്ന് അറിയില്ല

ഓക്കേ ഓക്കേ അതായിരിക്കും ഓക്കേ ഓക്കേ നോക്കാം നോക്കാം പനിയുണ്ടല്ലേ ഞാൻ നോക്കാം നോക്കാം പിന്നെ വേറെ പാരസെറ്റമോൾ മാത്രം മതിയോ കഞ്ഞി വെള്ളം ഓക്കേ ഓക്കേ ഏതു അരിടെ കഞ്ഞി വെള്ളം കഞ്ഞി വെള്ളം വേണം പൊന്നി വേണോ അങ്ങനെ വല്ലോം ഉണ്ടോ ഓക്കേ പൂച്ച പച്ച ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ